എനിക്ക് പൊതുവേ ഈ കുളത്തിൽ പോയി നീന്താനാണ് ഇഷ്ടം കാരണം എന്താ ഈ വയലിനവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു കുളം ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു വയലിൽ കുളമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുറേ പണ്ടത്തെ സുഹൃത്തുക്കളും കുറേ റിലേറ്റീവ്സും കസിൻസും സിബ്ലിംഗ്സൊക്കെ ആയിട്ട് ഞങ്ങളങ്ങോട്ട് പോകും വളരെ രസമാണ് കഥയൊക്കെ പറഞ്ഞ് കുറച്ചധികം നടക്കാനുണ്ട് കഥയൊക്കെ പറഞ്ഞ് നടന്ന് വളരെ ആസ്വദിച്ച് എന്താ പറയുക നമുക്കൊരു ഒറ്റക്കൊക്കെയാണെങ്കിൽ നമുക്കൊരു മടുപ്പടിക്കും ഇതുകൊണ്ട് കഥയൊക്കെ പറഞ്ഞ് വളരെ രസകരമായി നമുക്ക് നീന്താം